അ ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു അഞ്ചു ദിവസത്തേക്ക്

ട്വൻറ്റി റ്റു ട്വൻറ്റി ഫോർത്ത് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ്

അഞ്ച് അഞ്ചു പേര്

അപ്പം പാക്കേജ് റേറ്റൊക്കെ എങ്ങനെയാണ് അ അഞ്ചു പേരായിട്ടാണ് അ

അ അപ്പം പതിനെട്ട് വയസ്സ് മേലെ ഉള്ളവർ മാത്രമേ ഉള്ളു

അ അഞ്ചു പേര് ഇല്ല അത് കറക്റ്റായിട്ട് ഒരു ഐഡിയ ഇല്ല

ഒ അപ്പം ഗൈഡിൻ്റെ ഞങ്ങൾ നോക്കേണ്ടി വരുമോ ഓക്കെ ഓക്കെ

അ ഹ ഹ അ ആദ്യമായിട്ടാണ് ഓക്കെ മ്മ് ഇപ്പം ഒരു അഞ്ചു ദിവസമൊക്കെ ആകുമ്പോഴേക്കും ആൾമോസ്റ്റ് അത്യാവശ്യ പ്ലെയിസസ്സൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ

മ്മ് മ്മ് അപ്പം ഈ ക്യാമ്പ്ഫയറും കാര്യങ്ങളൊക്കെയോ ഓക്കെ അപ്പം റേറ്റ് വരുന്നത് ടു തൗസൻഡ് പെർ ഹെഡ് ഓക്കെ അ ഓക്കെ താങ്ക് യു